അപ്പോള് ഇൻറ്റർനെറ്റാണങ്കില് നമ്മള് ഗെയിംസ് വച്ച് നമ്മളെങ്ങനെ കളിക്കുമെന്നുള്ള രീതികൾ എന്തൊക്കെ പുതിയതായ കളികളൊക്കെ വന്ന് അതൊക്കെ വന്നിട്ടുണ്ട് ഇൻറ്റർനെറ്റ് വന്നതോടെ ശേഷം അതൊക്കെ പല രീതിയിലൊക്കെയാണ് ഇതു കളിക്കുകയും അതൊക്കെ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോള് ഇതിനൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുവച്ചാല് ഓൺലൈനായിട്ട് മൾട്ടി പ്ലെയറായിട്ടുള്ള ഗെയിം നമ്മള് പബ്ജിയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോള് പബ്ജി കോളോഫ് ഡ്യൂട്ടി ഇതക്കെയാണെങ്കില് നമ്മളെന്താ ചെയ്യുന്നതെന്നുവച്ചാല് പലരുമായിട്ടും കണക്റ്റ് ചെയ്ത് നമ്മളാണെങ്കില് ഇങ്ങനെ ഗെയിംസൊക്കെ കളിക്കുന്നതായിരിക്കും പിന്നെ സ്ഥലം ഒന്നുമറിയാണ്ട് ലോകത്തെവിടെ വേണമെങ്കില്പ്പോലും നമുക്ക് മൾട്ടി പ്ലെയർ ഗെയിംസൊക്കെ കളിക്കാനായിട്ടു സാധിക്കും ഫോണുകളിലൊക്കെ ഗെയിംസൊക്കെ പലതരമായിട്ട് വന്നിട്ടുണ്ട് കാന്റി ക്രഷ് ക്ലാഷോഫ് ക്ലാൻസ് പോക്കിമോങ്കോ ഇങ്ങനെ പലതരം ഗെയിമുകളൊക്കെ കളിക്കാന് പറ്റും ഈ ഗെയിംസൊക്കെ വച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങി നമുക്ക് നടന്ന് അതു മാത്രമല്ല ഫിറ്റ്നസൊക്കെ നമുക്ക് മേയ്ൻറ്റേയ്ൻ ചെയ്തുവയ്ക്കാനായിട്ട് സാധിക്കും എന്തോ പിന്നെ ഇപ്പോഴൊരു പലതരം ജോൺറൊക്കെയുണ്ട് ഈ ഗെയിംസൊക്കെ പിന്നെ അതു മാത്രമല്ല സോഷ്യൽ ഇൻട്രാക്ഷൻ സ്ട്രീമിങ്ങെന്നൊക്കെ പറഞ്ഞ കാര്യം എന്നുവച്ചാല് ഈ യൂ ട്യൂബിലും ട്വിച്ചെന്നു പറഞ്ഞൊക്കെ ഒരു പലതരം വേദികളുണ്ട് ഈ വേദികളിലൂടെ നമുക്ക് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരോടും നമുക്കിത് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റും ഇവര് നമ്മള് ആൾക്കാരൊക്കെ നമ്മള് ഗെയിം കളിക്കാനായിട്ട് നമുക്കു സാധിക്ക്മം അതു മാത്രമല്ല ആൾക്കാരായിട്ട് എൻഗേജ് ചെയ്ത് നമുക്കിത് ഒരു ഗെയിം കളിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ള വേദിയും കൂടി ഉണ്ട് അങ്ങനെ നമ്മളൊരു ഒരു ആൾക്കാരുടെ ഒരു സമൂഹം അങ്ങനെ ഉണ്ടാക്കാനായിട്ട് നമുക്കു സാധിക്കാൻ പറ്റും പിന്നെ പിന്നെയെന്നു പറയുമ്പോള് ക്ലൗഡ് ക്ലീ ക്ലൗഡ് ഗെയിമിംഗാണ് എന്നുവച്ചാല് എക്സ്ബോട്സിൻ്റെ ഉണ്ട് എൻ വിഡിയടെന്നൊക്കെയുണ്ട് ക്ലൗഡ് ഗെയിമിങ്ങെന്നുവച്ചാല് നമുക്കൊരു വലിയ വലിയ കപ്പാസിറ്റിയുള്ള ഫോണുകളോ അതിന്റെയൊക്കെയൊന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ ചെറിയ ഫോണാണെങ്കില്പ്പോലും ഈ ഫോണിലൂടെ നമുക്ക് ഒരു ഇൻറ്റർനെറ്റ് വഴി നമുക്ക് കണക്റ്റ് ചെയ്ത് നമുക്ക് ഗെയിമുകളൊക്ക കുറേ എണ്ണങ്ങള് നമുക്കു കളിക്കാൻ സാധിക്കും അതു മാത്രമല്ല പിന്നെ പിന്നെ ഈ ഗെയിം ആണെങ്കില് നമുക്ക് സര്വറില്നിന്നു ലഭിച്ച് നമുക്കങ്ങനെ കളിക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ എൻഡ്ഗെയിം പർച്ചേസസ് എന്നുവച്ചാല് ഗെയിമിലൂടെ നമ്മള്ക്ക് കുറേ ഈ ഗെയിമിന്റേതായ കാര്യങ്ങള് കാശു കൊടുത്ത് നമുക്ക് വാങ്ങി സാധിക്കാന് പറ്റും അങ്ങനക്കെ കുറച്ച് സ്കിൻസെന്നു പറഞ്ഞൊരു സാധനമുണ്ട് എന്നുവച്ചാല് നമുക്ക് ഇപ്പോള് ടോക്കുണ്ടല്ലോ ടോക്കിനൊക്കെയാണേലും ധരിപ്പിക്കുക എന്നുള്ള രീതിയില് അതുപോലൊക്കെയാണ് ഈ സ്കിന്നിനൊക്കെചുരിക്കത്തില് പറയുകയാണെങ്കില് എന്നുള്ള കാര്യങ്ങള് എന്നുവച്ചാല് പല ഗെയിംസും ഇതുപോലത്തൊരു മോഡലിലാണ് എന്നുവച്ചാല് ഫ്രീയായിട്ട് കിട്ടുകയാണെങ്കില്പ്പോലും നമുക്ക് ഇവര്ക്കൊരു കാശ് അഛാ ഗെയിം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കാശ് ഉണ്ടാക്കാൻ ഒരു വഴി വേണം അപ്പോള് ഇങ്ങനെ കാഷ് ഉണ്ടാക്കുകയാണെങ്കില് അങ്ങനെയുള്ള രീതിയാണ് എന്ഡ്ഗേം പർച്ചേസ് മൈക്രോ ട്രാൻസാക്ഷനെന്നൊക്കെ പറയാം അപ്പോള് ഇങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ക്യാഷെടുത്ത് ഇവർക്ക് ഇതില്നിന്ന് പ്രോഫിറ്റൊക്കെ വാങ്ങിക്കാൻ പറ്റും ഗെയിമുകള് എളുപ്പത്തില് തീർക്കുകയാണെങ്കില് അല്ലെങ്കില് നമുക്ക് കുറച്ചുകൂടി ആസ്വാദിക്കാന് കിട്ടണമെങ്കില് നമുക്ക് ഇങ്ങനെ ഗെയിമില് നമുക്ക് മേടിക്കാനായിട്ടു സാധിക്കും പിന്നെയെന്നു പറയുമ്പോള് വെർച്വൽ റിയാലിറ്റി നമ്മള് ഇതുപോലെ കണ്ണാടി പോലത്തെ സാധനങ്ങളൊക്കെ വച്ചിട്ട് നമുക്ക് റിയൽ ലൈഫില് നമുക്ക് കാണാൻ പോലത്തെ രീതിയില് അതുവച്ചാല് റിയൽ ലൈഫില് ഈ കഥാപാത്രങ്ങൾ അവിടെ ഒരു ഗ്രാഫിക്കലി നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും എന്നുവച്ചു പറയുകയാണെങ്കില് ഇതുപോലത്തെ ഗെയിം പോക്കിമോൻ ഗോ പിന്നെ ബിറ്റ് സേബർ ഇതുപോലത്തെ ഗെയിമുകള് വച്ചിട്ട് നമുക്ക് റിയൽ ലൈഫിന് പോലെ വെർച്വൽ റിയാലിറ്റിയെന്നുവച്ചാല് നമ്മള് റിയലി ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള രീതിയില് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ എന്നു പറയുമ്പോള് പക്ഷേ ഇതിങ്ങനെ ഗെയിംസ് ഇതുപോലത്തെ ഓൺലൈൻ ഗെയിംസ് ഇറങ്ങി എന്ന് ഓർത്താല് നല്ല കാര്യങ്ങള് മാത്രമല്ല അതിൻ്റെതായ ദോഷവശങ്ങളൊക്കെ എല്ലാം ഉണ്ട് അതിൽ മെയിനായിട്ട് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഒബിസിറ്റി അല്ലെങ്കില് തടിവയ്ക്കുന്നത് എന്നുവച്ചാല് ഇതുപോലത്തൊരു ഒരനക്കമില്ലാണ്ട് ചുമ്മാ ഒരിടത്തുനിന്ന് ഗെയിം കളിക്കുന്നതുകൊണ്ട് തടിവയ്ക്കുന്നതിന് എല്ലാ സാധ്യതകള് അതെന്നുവച്ചാല് ചെറിയ കുട്ടികളില് ചെറു പ്രായത്തില്തന്നെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോള് ഇതു മൂലം നമുക്കു കുറേ വണ്ണം വയ്ക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതിപ്പോള് നമ്മള് ഭാവി ഇത് നമ്മളെ ബാധിക്കാൻ വളരെ സാധ്യതകളുണ്ട് പിന്ന കണ്ണിലുള്ള സ്ട്രെയിന് ഇത് ഇങ്ങനെ ഫോൺ പണിത് ഫോണില് ഗെയിംസൊക്കെ കളിച്ചാണ് കണ്ണിനു ഭയങ്കര സ്ട്രെയിനുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോള് ഇതിന് ഷോട്ട് സൈറ്റ് പിന്നെ കണ്ണുണങ്ങിപ്പോകാനുള്ള സാധ്യത കഴുത്ത് വേദന ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നല്ല വിഷയം അതുകൊണ്ട് അതൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ശരീരത്തിൻ്റെ പോസ്ചർ ഇതൊക്കെ കഴുത്തൊക്കെ ഒടിഞ്ഞ് ഒടിഞ്ഞ് നില്ക്കുവാനുള്ള സാധ്യത പ്രോപ്പറായിട്ടുള്ള പോസ്റ്ററല്ലാണ്ട് നമ്മള് കഴുത്തിനു നല്ല വേദന എടുക്കാനുള്ള സാധ്യത ഇങ്ങന കുറേ നേരം ഗെയിം കളിക്കുന്നതുകൊണ്ട് പിന്നെ ഉറക്കത്തിൻ്റെ വിഷയം ഇങ്ങനെ കുറേ നേരം സ്ക്രീനുകളിലൊക്കെ നോക്കിയിരുന്ന് നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നല്ല ഉറക്കം കിട്ടത്തില്ല പിന്നെ ഇൻസോംനിയ എന്നുള്ള അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മെലാറ്റോണിന് എന്നു പറഞ്ഞൊരു സാധനത്തിൻ്റെ പ്രൊഡക്ഷൻ അതൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് പിന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ ഗെയിമെപ്പോഴും കളിച്ചോണ്ടിരുന്നാല് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും അപ്പോള് അതങ്ങനെ ശരിയാവത്തില്ല ഇനി ഇങ്ങനെ അഡിക്ഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോള് അത് ഒരിക്കലും അങ്ങനെ അധികം ഗെയിം കളിക്കുന്നതു ശരിയാവത്തില്ല പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സ് പുറത്തു പോയി പരമാവധി കളിക്കാനും നമ്മള് ശ്രമിക്കണം എന്നാല് മാത്രാണ് നമ്മുടെ മോട്ടോര് സ്കിൽസ് ഒരു കാര്യം ചെയ്യുമ്പോള് പ്രവൃത്തിയിലൂടെ എത്താൻ നമുക്കൊരു കോഡിനേഷൻ പിന്നെ കുട്ടികളില് ഇതൊക്കെ വളർത്താൻ നമ്മള് നോക്കണം ഇതൊക്കെയാണ് നമ്മള് കുറേയായിട്ട് ചെയ്യേണ്ട കാര്യം എന്നു പറയുമ്പോള്